ശരീരത്തിന് ഭാരം ഇല്ലാതിരിക്കുക മെലിഞ്ഞിരിക്കുക എന്നുള്ളത് ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റോം വലിയ പ്രശ്നമാണ് അവർ അണ്ടർ ന്യുട്രീഷ്യസായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു അതാണ് അവർക്ക് വണ്ണം വെക്കാൻ സാധ്യതയില്ല അതല്ലെ വണ്ണം വേയ്ണു വളരെ ശോഷിച്ച ശരീരപ്രകൃതി അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ വിളർച്ച ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് അതുകൊണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ ഉയരത്തിന് ഒത്ത വണ്ണവും ഓരോരുത്തർക്കും ആവശ്യമാണ് വണ്ണം വെക്കുന്നതിന് പല കാര്യങ്ങളും ഇതിൽ പല മരുന്നുകളും സാധാരണയായി ഉപയോഗിക്കാറുണ്ട് ഒന്നാമത് ഉപയോഗിക്കുന്നത് തേൻ ഇതിന് വളരെ ഗുണകരമായ ഒരു ഔഷധമാണ് തേൻ അതെരട്ടി വെള്ളം ചേർത്തില്ലെങ്കിലൊരു ഗ്ലാസ്സ് വെ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ തേൻ ഇട്ട് അത് അലിയിപ്പിച്ച് വെള്ളം ചേർത്ത് കുടിക്കുന്നത് തടി മെലിഞ്ഞവർക്ക് തടിക്കാൻ ഒരു പ്രത്യൗഷധ ഇല്ലെങ്കിലൊരു പ്രത്യേകമായ ഒരു ഔഷധകൂട്ടായിട്ടാണ് കണക്കുകൂട്ടുന്നത് അതായത് നമ്മുടെ സ് ശരീരത്തിന് യാതൊരു ദോഷമില്ലാത്ത വിധത്തിലൊരു യാതൊരലർജിയും ഉണ്ടാകാത്ത വിധത്തിൽ സാധാരണ നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണത് പിന്നീടുള്ളത് എള്ളെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എള്ളെണ്ണ കൂടുതലായിട്ട് ഭക്ഷണത്തിലുപയോഗപ്പെടുത്തിയാൽ തടിച്ച് വരുന്നതാണ് പിന്നീടുള്ളത് നമ്മള് വളരെയധികം ഉപകാരം അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ കൂട്ടി ചേർത്തുണ്ടാക്കുന്ന ചില മരുന്നുകളാണ് ഒന്നാമത് അമുക്കുരം പാലിൽ പുഴുങ്ങി അത് അരച്ച് വെയിലത്തൊണക്കി ഇല്ലെങ്കിൽ പ പൊടിയാക്കി അത് ദിവസവും പാലും നെയ്യും കൂട്ടി ചേർത്ത് കഴിക്കുന്നത് മെലിഞ്ഞവർ തടിച്ച് വരാനുള്ളതിനുള്ള മരുന്ന് ഒരു പ്രത്യേക ഒരൂ ഒരു സഹായകമായൊരു മരുന്നാണ് പിന്നീടുള്ളത് പാൽനകത്ത് നമ്മുടെ ഒരൂ കിഴാർന്നെല്ലി അരച്ച് അത് കലക്കി കുടിക്കുന്നത് നല്ലതാണ് പിന്നീട് ഉള്ളത് തേൻന് തേൻനകത്ത് അത് വെള്ളം ചേർത്ത് കുടിക്കുകയോ ഇല്ലെങ്കിൽ പിന്നീട് പാ പാലിനോട് ഒപ്പം അത് സേവിക്കുന്നതും നല്ലതാണ്

നറുനീണ്ടി പിന്നീട് നമ്മുടെ കൊട്ടഞ്ചുക്കാദി പിന്നീട് നമ്മുടെ അയമോദകം ഇതെല്ലാം കൂട്ടിചേർത്ത് പൊടിച്ച് നെഴൽലൊണക്കി അതിനകത്ത് നെയ്യ് കൂട്ടി സേവിക്കുന്നതും വളരെ തടിച്ച് വരാനുള്ള ഒരു മാർഗമാണ് ഇതെല്ലാം നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാവുന്ന ഏറ്റോം ചിലവ് കുറഞ്ഞ മരുന്നുകളാണ് ഇതിനേക്കാളി ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ക്രമീക്കരിക്കുക എന്നുള്ളതാണ് നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് ബാലൻസ്ഡ് ഡയറ്റ് കഴിയ്ക്കാണെങ്കിൽ നമ്മുടെ ശരീരം ശരീരപ്രകൃതി ആരോഗ്യമുള്ളതായിട്ടും നം നല്ല തടിച്ച് നല്ല ഒരു സാമാന്യമായ രീതിയിൽ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതാണ് അതിന് നമ്മൾ മുട്ട ദിവസവും ഭക്ഷണത്തിനകത്ത് മുട്ടയും പാലും ചേർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റാർച്ച് അല്ലെങ്കിലന്നജം കൊ കുറച്ച് കൊണ്ട്വരുകയും നമ്മുടെ പ്രോട്ടീൻ വരുന്ന സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണസാധനങ്ങൾടെ അംശങ്ങൾ കൂട്ടുന്നതും നമുക്ക് ശരീരം തടിച്ചു വരാനുള്ള സാധ്യതകൾ വളരേ കൂടുതലാണ് പിന്നീട് പട്ടിണി കിടക്കാതിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾടെ ബ്രേക്ക് ഫാസ്റ്റ് വളരെ നിർബന്ധപൂർവ്വം കഴിക്കേണ്ടതാണ് അത് നമ്മൾ കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന് വളരെ അധികം പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതകളുണ്ട് നമ്മൾ പെട്ടന്ന് മെലിഞ്ഞ് പോകാനും നമ്മുടെ ക്ഷീണിതരാവാനും സാധ്യതയുണ്ട് അപ്പം ഭക്ഷണം കഴിയ്ക്കുക എന്നുള്ളതല്ല നല്ല ഭക്ഷണം അല്ലേൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ശരിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റു മരുന്നുകളെ ആശ്രയിക്കേണ്ടതില്ല രാസപദാർത്ഥങ്ങളടങ്ങിയ മരുന്നുകൾ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഹാനികരം ആയിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് എന്തേലും റിയാഷനൊ ഒരു ക ഒരു മരുന്നിനു ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്ന മരുന്ന് മറ്റൊരൂ ശരീരത്തിന് ഘടകത്തിന് വേറെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് ബാധിക്കുക ഇങ്ങനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ഏറ്റവും നല്ലത് ഭക്ഷണത്തിൽ തന്നെ ക്രമിക്കരിക്കുക എന്നുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്